ഞാൻ പണി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ആ പൈസ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ ഇപ്പം തന്നെ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാനും പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഭക്ഷണം മേടിക്കാനുള്ള പൈസാ പിന്നെ എവിടെയെങ്കിലുമൊക്കെ എടയ്ക്കൊക്കെയൊരു ടൂറ് പോകാനോ ഇല്ലെങ്കിൽ പുറത്തു നിന്ന് ഒര് എടയ്ക്ക് ഭക്ഷണം കഴിക്കാനോ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ അതിനൊക്കെ നമുക്ക് പൈസ തന്നെ വേണം അതിനൊക്കെയാണ് നമ്മൾ പണി എടുക്കുന്നത് തന്നെ നമ്മൾ പണി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുടുംബം നോക്കാനോ പട്ടിണി ഇല്ലാതെ ജീവിക്കാനോ പിന്നെ ഒ യാത്ര ചെയ്യാനും അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കാണ് പിന്നെ മക്ക കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ കുട്ടികൾക്കുള്ള ഫുഡ് പിന്നെ അവരുടെ പഠിത്തം അങ്ങനെയുള്ള കാര്യങ്ങൾക്കു വേ ഡ്രസ്സുകൾ എവിടെ എങ്കിലും പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ ഡ്രസ്സ് വേണം ഡ്രസ്സുകൾ അങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങൾക്കാണ് നമ്മളിപ്പം പണിയ്ക്കു പോകുന്നത് തന്നെ പണിയ്ക്കു പോയില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ഫുഡ് ഉണ്ടാക്കാവുന്ന കാര്യമാണ് മെയിൻ ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല വീട് പണിയുക അങ്ങനത്തെ ഒരുപാട് ലഷ്യങ്ങളുണ്ട് ആ ലഷ്യങ്ങൾക്കൊന്നും ആ ലഷ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ എന്നും എന്നും പണിക്ക് പോകുന്നത്